പെടുന്നത് എനിക്ക് നമ്മുടെ കേരളം തന്നെയാണ് എനിക്ക് കൂടുതൽ കേരളത്തിലെ സലങ്ങളാണ് എനിക്ക് ഒരോരോ ഇഷ്ടം ഇവിടെ പച്ചപ്പും ഹരിതാപവും പറഞ്ഞ് പിടിച്ച് ഒരുപാട് സ്ഥലങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട് മൂന്നാറ് ഒരുപാട് ഇഷ്ടമാണ് വാഗമൺ വാഗമൺ ഞാൻ ഒരുപാട് തവണ പോയിട്ടുണ്ട് എനിക്ക് വാഗമണ്ണിലെ ഒരുപാട് ഇഷ്ടമാണ് അവിടുത്തെ മഞ്ഞും അവിടെ കൂടുതലും എനിക്കിഷ്ടപ്പെട്ട അവിടുത്തെ കോടയാണ് കോടയാണ് പിന്നെ അവിടുത്തെ ആൾക്കാരുടെ സ്വഭാവം നമ്മളോട് അവർ സംസാരിക്കുന്ന രീതിയും എല്ലാം ഭയങ്കര രസമാണ് അവർ നമ്മളോട് നല്ല രീതിയ്ക്ക് തന്നെ നല്ല മനുഷ്യരാണ് അവിടുത്തെ പിന്നെ അവിടുത്തെ മഞ്ഞ് ക്ലൈമറ്റ് എല്ലാം ദൃ നല്ല രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റത്തയാണ് നല്ല അവിടുത്തെ തണുപ്പ് ഒരുപാട് എനിക്കിപ്പോൾ വാഗമൺ ഒരുപാട് ഇഷ്ടമാണ് പിന്നെ മൂന്നാറ് ഇഷ്ടമാണ് എല്ലാം വ എല്ലാം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് പിന്നെ ഫ്രണ്ട്സുകളുടെ കൂടെ ഞങ്ങൾ ഇടയ്ക്ക് ഇടയ്ക്ക് പോകാറും ഉണ്ട് വേറെ എന്ന് പറഞ്ഞാൽ അത്രയും നല്ല എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എൻ്റെ ഇത് വെച്ച് എനിക്ക് ഈ രണ്ട് സലങ്ങൾ ഒരുപാട് ഇഷ്ടമാണ് പിന്നെ ഈ മൂന്നാറൊക്കെ ഒരുപാട് റിസോട്ടുകളുണ്ട് റിസോട്ടുകൾ അവിടെ നമുക്ക് അല്ലാത്ത നമ്മുടെ ക്യാമ്പ് ഫയർ പോലെ ഒക്കെ ഒരുപാട് സ കാര്യങ്ങളൊക്കെ